അതുകൊണ്ട് ആഹ് ആ അതിന്റെ ശേഖരണം ശേഖരിച്ചു വയ്ക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് നമ്മുടെ മക്കള്ക്ക് നല്ല ഒരിത് മാത്രം വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടുതന്നെ നല്ലൊരു നല്ലൊരു കുട്ടിയായിരിക്കും അപ്പോൾ പഴയ സ്റ്റാമ്പുകളും പഴയ നാണയങ്ങളും കല്ലുകളെല്ലാം ശേഖരിച്ച് വയ്ക്കുക തന്നെയാണ് ചെയ്യേണ്ടത്ത് എന്നാല് മാത്രമേ ഇനിയുള്ള തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാന് പറ്റുള്ളു നമ്മുടെ നമ്മുടെ കാലത്ത് ഇതായിരുന്നു നമ്മുടെ നാണയം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാന് പറ്റുള്ളൂ അതുകൊണ്ട് ഏറ്റവും നല്ലത് നല്ല നല്ലൊരു കാര്യമാണ് നാണയങ്ങളും സ്റ്റാമ്പുകളും കല്ലുകളൊക്കെ ശേഖരിച്ചു വയ്ക്കുന്നത്